തീർച്ചയായും നമ്മുടെ ലോകം മാറിമറിഞ്ഞു കൊണ്ടിരിക്കുകയാണ് കാരണം സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ആയാലും പണ്ടത്തെക്കാളും ബെറ്ററായി അതേപോലെ വണ്ടികള് നമുക്ക് പണ്ട് കടൽ മാർഗ്ഗമായിരുന്നു ഇപ്പോൾ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ പക്ഷേ ഇപ്പം നമുക്ക് വിമാന മാർഗത്തിലൂടെയൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ചെല്ലാൻ പറ്റും അതേപോലെ തന്നെ എവിടെയിരുന്നു വേണമെങ്കിലും നമുക്ക് ആരോടും എന്തുവേണമെങ്കിലും സംസാരിക്കാം പണ്ട് ഒരു ലാൻഡ് ലൈൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബൂത്തിൽ ഒക്കെ പോയാൽ ആണ് നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ടെലിഗ്രാം എന്തെങ്കിലും അവരുടെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ എഴുതുന്ന കത്തുകൾ ഇന്നിപ്പോൾ ഇപ്പോൾ അവരെ വിളിക്കാം എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ ഫോണില് ബാലൻസും നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാം അപ്പം ലോകം മാറു വളരെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് മാറിമറിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഓരോ നല്ല നല്ല കാര്യം ചന്ദ്രയാനിലേക്ക് ഇപ്പം ചന്ദ്രൻ ഒരു ചന്ദ്രയാനിലേക്ക് പോയി വന്നു അങ്ങനെ ഉള്ള നമുക്ക് എല്ലാ സ്ഥലത്തിലും എത്തിപ്പെടാൻ ലോകത്തിലെ എല്ലാവർക്കും നല്ല വ്യക്തിത്വങ്ങളെ ഉണ്ടാക്കാനും പുരോഗമനത്തിലേക്ക് എത്തിച്ചേരാനും പറ്റുന്നുണ്ട്